ആ പറഞ്ഞോ കഞ്ഞിക്കുഴിയോ ആ പോകാമല്ലോ

ഇവിടുന്ന് കഞ്ഞിക്കുഴി പോകുന്നത് ഏതാണ്ട് ഇരുപത് കിലോമീറ്ററ് വരും ഇരുപത് കിലോമീറ്ററിന് അറുന്നൂറ് അറുന്നൂറ് രൂപ ചാർജ് വരും

ആ ആ വെയ്റ്റിങ്ങിൻ്റെ അനുസരിച്ച് നമുക്ക് പൈസ കൂടും പിന്നെ കഞ്ഞിക്കുഴിക്ക് പോകുന്നത് നമ്മൾ ഏത് വഴി പോകണം നമുക്ക് കഞ്ഞിക്കുഴിയിലോട്ട് ശകലം വഴി റോഡൊക്കെ മോശമാ നമുക്ക് കോട്ടയം വഴിയേ പോവാൻ പറ്റത്തുള്ളല്ലോ പൂവന്തുരത്ത് അതിൽ പോയി അവിടെ റോഡ് പണിയാ ചേട്ടാ അപ്പം റോഡ് അല്ല ചേട്ടാ അതിൽ കഞ്ഞിക്കുഴി ചെല്ലാമെന്ന് പറഞ്ഞാൽ അവിടെ റോഡ് പണിയാ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാ വഴിയെല്ലാം ബ്ലോക്ക് ആയിരിക്ക ചെറിയ റോഡുകളെല്ലാം റോഡ് പണിയാണ് അപ്പം ഇന്ന് ഇന്ന് ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച പോലും അവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാ ആ അത് നിങ്ങള് പാസഞ്ചേഴ്സ് എത്ര പേരുണ്ട് പാസഞ്ചേഴ്സ് എത്ര പേരുണ്ട് മൂന്ന് മൂന്ന് മൂന്ന് പേരോ ആ നിങ്ങൾക്ക് പോയിട്ട് നിങ്ങൾക്ക് എപ്പം തിരിച്ച് വരേണ്ടതാ അപ്പം വെയിറ്റ് ചെയ്യുന്ന കാര്യം വെയിറ്റ് ചെയ്യുന്ന കാര്യം എനിക്ക് ഓട്ടം ഉണ്ടല്ലോ ചേട്ടാ വെയിറ്റ് ചെയ്യുന്ന കാര്യം ശകലം പ്രയാസമാ അപ്പം അതോ ഞാൻ നിങ്ങളെ കൊണ്ട് അല്ല ഞാൻ ആ ഇന്ന് ഭയങ്കര തിരക്കാ ചേട്ടാ അത് കാരണം നമുക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ നിങ്ങളെ കൊണ്ട് വിട്ടിട്ട് വന്നു പിന്നെ നിങ്ങൾ എന്നെ വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ വന്നാൽ മതിയാവുമോ ആ അപ്പം രണ്ട് ഓട്ടത്തിൻ്റെ പൈസ വരും ചേട്ടാ ഇപ്പോൾ ഇത് ഓട്ടം ഓട്ടം ഉള്ള സമയം ആവുമ്പോൾ നമുക്കിങ്ങനെ ഒത്തിരി സമയം വേറ്റ് ചെയ്യാനായിട്ട് സാധാരണക്കാരൻ ആയതുകൊണ്ട് എട്ടാ കുഴപ്പം ഇല്ല അതുകൊണ്ടാ നമ്മൾ പറയുന്നത് ഇപ്പം അല്ലെങ്കിൽ നമ്മൾ വെയ്റ്റിങ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു നമ്മൾ സാ ഓട്ടോർഷക്കാർ എന്ന് പറയുമ്പോൾ സാാരണക്കാരല്ലേ ആ ആ ആ ആ ആ ആ ആ